മലയാളം സംസാരിക്കുമ്പോൾ എഴുതുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ മലയാളം പഠിച്ച് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ് കാരണം പറയാൻ കാരണം എന്താണ് വെച്ചാൽ ഞാൻ പഠിക്കുന്ന കോളേജിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അഥവാ കേരള സ്റ്റേറ്റിന് പുറത്തുള്ള ആളുകളൊക്കെ ആസാമിന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് അവിടെ അവിടെ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പം അവർ ഇങ്ങനെ ആഗ്രഹം പറയും മലയാളം പഠിക്കാൻ അതുപോലെ തന്നെ അവർ ഓരോരോ വാക്ക് ഇങ്ങനെ പഠിച്ചിക്കാണ്ട് പഠിക്കാൻ ശ്രമിക്കും അപ്പം നമ്മളെ വാക്ക് പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെ വഴങ്ങാത്തത് പോലെ അനുഭവപ്പെടാറുണ്ട് അവർക്ക് കുറച്ച് കൂടി ബുദ്ധിമുട്ടുള്ളത് പോലെ അവർ നമ്മളോട് സംസാരിക്കാൻ ഹിന്ദിയിലൊക്കെ ആയിരിക്കും ആസാമന്നുള്ളവരൊക്കെ ആസാമിൽ ബേസിൽ അവരുടെ ഭാഷ അടിസ്ഥാനപരമായിട്ട് അവരുടെ ഭാഷ ആസാമിയാണ് എന്നിട്ടും അവർ വളരെ സിംമ്പിളായിട്ട് ഹിന്ദി പറയുന്നുണ്ട് അപ്പം അത് അവർ ഹിന്ദി പഠിച്ചെടുത്തതാണ് പക്ഷേ അത്രത്തോളം അവർക്ക് ഈ മലയാളത്തെ സമീപിക്കുമ്പോൾ സിമ്പിളായിട്ട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മലയാളം സംസാരിക്കാൻ ന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഷ തന്നെയാണ് അവ നമുക്ക് എന്ന് അറിയാം മലയാളികൾക്ക് തന്നെ മലയാളത്തിലെ ചില അക്ഷരങ്ങൾ യാ അങ്ങനത്തെ ള അങ്ങനത്തെ ചില അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കാനും അതിൻ്റെ ശരിയായിട്ടുള്ള അക്ഷരം പുറപ്പെടുന്ന സ്ഥലത്തിൽ നിന്ന് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കൻ പറ്റും ഈ ഭാഷയുടെ ഒരു ഒരു കാഠിന്യം ഭാഷ നല്ലൊരു ഭാഷയാണ് പക്ഷേ അത് സംസാരിക്കാൻ കുറച്ച് സ്പുടതയും കാര്യങ്ങളൊക്കെ വേണം പരിശീലിക്കേണ്ടത് ഉള്ള ഒരു ഭാഷയാണ് അതിൽ കുറച്ച് നമ്മൾ എക്സ്പീരിയൻസ് ആണ് എഴുതുമ്പോഴും അതുപോലെ തന്നെ മലയാളത്തിൽ ഒരുപാട് കെട്ടുകളുള്ള അക്ഷരങ്ങളുണ്ട് നമ്മൾ ഇതേ സമയം നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ നോക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ വളരെ സിംപിൾ ആയിട്ട് എഴുതിപ്പോകാൻ പറ്റുന്ന അക്ഷരങ്ങളാണ് അപ്പോൾ മറ്റ് ഭാഷകളെ സമീപിച്ച് മലയാളത്തിൽ എഴുതുന്ന എഴുതുമ്പോഴും ഒരു കെട്ടി കൊടുക്കും കുറച്ച് ടാസ്ക്ക് ആയിട്ട് നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അത് ഈ ഭാഷയുടെ ഒരു പ്രകൃതി അങ്ങനെയാണെന്ന് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നല്ല ഭാഷയിൽ തന്നെയാണ് പിന്നെ അതിന് അപ്പുറം ഈ ഭാഷ സംസാരിക്കുന്ന ഉപയോഗിക്കുന്ന പ്രയോഗിക്കുന്ന സ്ഥല സ്ഥലങ്ങളും ജിയോഗ്രാഫിക്കൽ അതിൻ്റെ സ്ഥലങ്ങളും വളരെ പരിമിധപ്പെട്ടിട്ടുള്ളത് തന്നെ പ്രത്യേകിച്ചും കേരളത്തിൽ മാത്രമുള്ളൂ പക്ഷേ മലയാളികളെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഇത് ബേസിക്കലി ഇതിൻ്റെ വളർച്ചയും ഇതിൻ്റെ ഉറവിടമൊക്കെ നോക്കുകയാണെങ്കിൽ കേരളം മാത്രം ആയത്കൊണ്ട് തന്നെ ആ സംസാരം അത്ര വ്യാപകമല്ല മലയാളികൾ വ്യാപകമാണ് എന്നുള്ളത് കൊണ്ടുള്ള വ്യാപകമല്ലാതെ അത്ര മലയാളം പഠിക്കേണ്ടതോ എഴുതി പഠിക്കേണ്ടത് ഒരാവശ്യം ഇല്ല എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു പരുക്ക സ്വഭാവത്തിന് കാരണമായെക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു